ഞാൻ ഈ ഫോട്ടോ സമൂഹത്തിൽ എത്തിക്കാനായിട്ട് ഇടുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇന്സ്റ്റാഗ്രാമ് അതുപോലെ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിങ്ങനെ പറഞ്ഞ ആപ്പുകളിലാണ് ഞാൻ ഫോട്ടോ ഇടുന്നത് ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസും ഇട്ടു കഴിഞ്ഞാൽ തന്നെ ഇടുന്നത് എന്തിനാണെന്ന് വച്ചാൽ നമുക്ക് ഒരു വരുമാനം ആവുമല്ലോ വിചാരിച്ചിട്ടും പിന്നെ അതേപോലെ കുറേ ആൾക്കാർ കാണും പിന്നെ ലോകം മൊത്തമുള്ള ആൾക്കാർ അറിയും ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവങ്ങൾ ഉണ്ട് അതുപോലെ ടൂറിസ്റ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നൊക്ക പറഞ്ഞിട്ട് അങ്ങനെ അറിയും അപ്പോൾ അത് മാത്രമല്ല നമുക്ക് പിന്നെ കുറേ പേർക്ക് അറിവ് നൽകാൻ പറ്റും ഒരു ഫോട്ടോയിൽ കൂടെ ആണെങ്കിലും അതേപോലെ നമ്മളെ ലൈഫ് വച്ചിട്ടാണ് പിന്നെ നമുക്ക് ഒരു വരുമാനം ആവുകയും ചെയ്യും പിന്നെ അതേപോലെ ഇന്സ്റ്റാഗ്രാമിൽ ആയാലും ഫേസ്ബുക്കിൽ ആയാലും കുറേ ഫോട്ടോസും കോമഡി വീഡിയോസും എല്ലാം നമ്മൾ ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിയും പിന്നെ അതേ പോലെ ഇങ്ങനെ കുറേ അപകടം നടന്ന ഇങ്ങനത്തെ ഫോട്ടോസും പിന്നെ അതേ പോലെ വീഡിയോസൊക്കെ അയച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അറിയും മറവ് എങ്ങനെ പോകണം എവിടെയൊക്കെ ആണ് ഇങ്ങനെ പ്രോബ്ല ഉള്ളത് അതുപോലെ എവിടെയൊക്കെ നല്ല സ്ഥലമുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ അറിയും അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത് പിന്നെ എനിക്ക് അതൊരു ചെറിയ ഒരു വരുമാനമായിട്ട് മാറുകയും ചെയ്യും കുറേ ആൾക്കാർ കാണുമ്പോഴൊക്കെ എനിക്ക് ഈ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ചെറിയ ഒരു വരുമാനായിട്ട് പൈസയൊക്കെ തരും